ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപ്പത്തി നാല് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപ്പത്തി നാല് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപ്പത്തി നാല് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപ്പത്തി നാല് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപ്പത്തി നാല്